നമ്മുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആദായമായി ഉണ്ടാകുന്ന വിളകളാണ് പിന്നെ തെങ്ങ് തെങ്ങും കാപ്പിയും കുരുമുളകും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എല്ലാവരും കൃഷി ചെയ്യുന്നത് പിന്നെ ചേന ചേനയുടെ കൃഷി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ തെങ്ങിൽ നിന്നാണ് തെങ്ങിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത് എന്ത് എണ്ണക്കായാലും കൊപ്ര ഇതാക്കി ഓരോ കാര്യത്തിന് വേണ്ടിട്ട് പിന്നെ എല്ലാവരും റബ്ബറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് റബ്ബർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് റബ്ബറിനെക്കാളും പണ്ട് മുതൽക്കേ കുരുമുളക് കാപ്പി അതേപോലെ തന്നെ കാപ്പിയുണ്ട് കുരുമുളക് ഉണ്ട് ഇപ്പോൾ റബ്ബറും വെച്ച് ഇപ്പോൾ റബ്ബർ കുറെ സ്ഥലത്ത് റബ്ബറായി വരുന്നുണ്ട് റബ്ബർ കുറെ കാലം മുൻപ്പ് വെട്ട് റബ്ബർ വെച്ച് തുടങ്ങിയത് കൊണ്ട് റബ്ബറിൽ നിന്ന് നമുക്ക് നല്ലൊരു പിന്നെ വിളകൾ ആദായം കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിള കിട്ടുന്നു എന്ന് പറയുന്നത് നമുക്ക് തെങ്ങിൽ നിന്നാണ് തെങ്ങാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്